ഹലോ ആ നമസ്കാരം ഇത് ആരാണ് വിളിക്കുന്നത് ആ അതെ ആ ആ ആ അതെന്താണ് നിങ്ങൾ ഇപ്പം നിങ്ങൾ വേറെ സ്കൂളിൽ ആ ആ ആ നിങ്ങൾ ആ ഗവൺമെന്റ് വർക്ക് ആണോ ചെയ്യുന്നത് ആ ആ ആ ആ ആ ആ അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എത്ര കുട്ടികളാണ് ഉള്ളത് രണ്ടോ ആ ആ അപ്പോൾ ഇപ്പോൾ ആൺ കുട്ടിയോ പെൺ കുട്ടിയോ ആ ആ ഇപ്പോൾ ഒരാളെ ചേർക്കാൻ വേണ്ടിയിട്ടാണോ വിളിച്ചത് ആ അപ്പോൾ എത്രാം ക്ലാസ്സിലേക്കാണ് ചേർക്കാൻ ഉദ്ദേശിക്കുന്നത് ഏഴിലേക്കാണോ ആ ആ ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ മാസം നിങ്ങൾ വന്ന് ഇവിടെ വന്നോ വന്ന് സെറ്റിൽ ആയോ ആ അപ്പോൾ വരുമ്പോഴത്തേക്ക് വന്ന് നേരിട്ട് തന്നെ കൊണ്ട് പോയി ചേർക്കാൻ ആണോ

ആ ആ ഇത് ഇപ്പോൾ ആ ആ ഓക്കെ ഇവിടെ ഇപ്പോൾ നിങ്ങൾ വരുന്ന അന്ന് തന്നെ നമുക്ക് അഡ്മിഷൻ എടുത്ത് തരാം ഇപ്പോൾ അടുത്തയാഴ്ച ആണെങ്കിൽ അടുത്തയാഴ്ച നിങ്ങൾ വരുന്ന അന്ന് തന്നെ ഞാൻ ഇവിടെ പറഞ്ഞ് വയ്ക്കാം ഓഫീസിൽ ചെന്നാൽ മതി അപ്പോൾ ഇപ്പം ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് ഉണ്ട് ഇപ്പം രണ്ട് മാസം കഴിഞ്ഞല്ലോ അപ്പം രണ്ട് മൂന്ന് മാസത്തെ ക്ലാസ് ഉണ്ട് ഒരു സ്പെഷ്യൽ ആ ആ റെഡി ആക്കാൻ പറ്റും അവൾക്ക് ആയിട്ട് ശനിയാഴ്ചയോ അല്ലെങ്കിൽ ഇപ്പം നാല് മണിക്ക് ക്ലാസ് കഴിയും ഒരു നാലര വരെ നിന്നാൽ ഒരു അരമണിക്കൂർ എക്സ്ട്രാ എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ക്ലാസ് ഒക്കെ എടിത്തുകൊടുത്തിട്ട് പോർഷൻസ് തീർക്കാം ആ എടുത്ത പോർഷൻസ് ഒക്കെ തീർക്കാം പിന്നെ അതുപോലെ ഇവിടെ ചേർക്കണമെങ്കിൽ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് പിന്നെ കുട്ടി ഡോണേഷൻ ഉണ്ട് അതുപോലെ ഫീയും ഉണ്ട് ഇപ്പം ഡോണേഷൻ എന്ന് പറയുന്നത് അൻപതിനായിരം രൂപയാണ് അപ്പം നിങ്ങൾ ഫസ്റ്റ് വന്ന് ഇത് ഇവിടെ അഡ്മിഷൻ എടുക്കുമ്പോൾ ആ ഡോണേഷൻ ഇവിടെ കൊടുക്കണം അല്ലെങ്കിൽ ഒരു ഓ ബസ് ഉണ്ട് ബസ് ഉണ്ട് ഇവിടെ ആ നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ കൊണ്ടാക്കുന്നില്ലെങ്കിൽ ഇവിടെ ബസ് അവൈലബിൾ ആണ് നിങ്ങൾ ഏത് റൂട്ടിലാണെന്ന് പറഞ്ഞാൽ മതി വന്നിട്ട് ആ ആ പിന്നെ അതായിരിക്കും നല്ലത് പിന്നെ ഒര് സേഫ്റ്റി ആണല്ലോ ഇപ്പം ബസ്സിൽ എല്ലാ കുട്ടികളും കൊണ്ടാക്കാൻ പോവുമ്പോൾ ആ ആ ബസ് ഇവിടെ ഉണ്ട് ആ ആ ആ ആ അപ്പോൾ ഇവിടെ വന്നിട്ട് നിങ്ങൾ ഓഫീസിൽ പറഞ്ഞാൽ മതി ബസ് വേണം പിന്നെ അതുപോലെ യൂണിഫോം ഇവിടെത്തന്നെ പുറത്തുനിന്ന് എടുക്കരുത് ഇവിടെത്തന്നെ ഇവിടെ ഉള്ള യൂണിഫോം അളവ് എടുത്തിട്ട് വരുന്ന അന്ന് അളവ് എടുത്തിട്ട് കൊടുത്താൽ മതി ഒരാഴ്ച്ചക്ക് ഉള്ളിൽ നിങ്ങൾക്ക് അത് കൈയ്യിൽ കിട്ടും പിന്നെ ബുക്സ് ഇവിടെ നിന്നുതന്നെ അവൈലബിൾ ആണ് പുറത്തുനിന്ന് ഒന്നും വാങ്ങേണ്ട ഇവിടെ പിന്നെ ഇവിടുത്തെ ബുക്സ് തന്നെ ഉപയോഗിക്കണം പിന്നെ അതുപോലെ ഈ അങ്ങനത്തെ നോട്ടും ഇവിടെത്തന്നെ ഇവിടെത്തന്നെ ആ ഈ സ്കൂളിന്റെ പേര് എഴുതിയിട്ടുള്ള ചട്ടയാണ് അപ്പം അത് തന്നെ ഇവിടെ നിർബന്ധം ആണ് അപ്പോൾ പൊറത്തിന്ന് ഒന്നും വാങ്ങി വയ്ക്കേണ്ട പിന്നെ അതിൻ്റെ ഒക്കെ ഫീ നിങ്ങൾ വരുന്ന അന്നുതന്നെ കൊടുക്കണം പിന്നെ ഡോണേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് മാസത്തിന്റെ ഉള്ളിൽ ഇൻസ്റ്റാൾമെന്റിൽ ആയിട്ട് അടച്ച് കൊടുത്താൽ മതി അഞ്ച് മാസത്തിന്റെ ഉള്ളിൽ തീർത്താൽ മതി ഫീ ഒരു ആ ഫീ ഒരു ഇപ്പം മാസം മാസം ഒരു പത്തായിരം രൂപ ഫീ ആയിട്ട് വരും ആ ആ ആ ഫീ ഫസ്റ്റത്തെ മാസത്തിലെ പത്തായിരം നിങ്ങൾ ഇവിടെ അടച്ചിട്ട് വേണം പോവാൻ എന്നാലെ കുട്ടിക്ക് വരാൻ പറ്റുള്ളൂ പിന്നീട് ഉള്ള ഫീൻ്റെ എന്താണെന്ന് വെച്ചാൽ കുട്ടീന്റെ ഡയറിയിൽ എഴുതി വിടും അപ്പോൾ ആ കാര്യങ്ങൾ ഒക്കെ നിങ്ങൾ വന്നിട്ട് പിന്നെ ഓഫീസിൽ ചോദിച്ചാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അവർ പറഞ്ഞ് തരും ഇനി നിങ്ങൾ വരുന്ന അന്ന് വന്നാൽ മതി ഓഫീസിൽ ചോദിച്ചാൽ മതി ആ എന്നാൽ ഓക്കെ